വാൽ നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മൾ നോക്കുന്ന സമയം കൊണ്ട് അത് മറഞ്ഞ് പോകും നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും അത് കാണാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവാറുണ്ട് പഷെ അതെങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വസ്തു അല്ല ഒന്നോ രണ്ടോ തവണ ഞാൻ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് ചെറുപ്പത്തിൽ വാൽ നക്ഷത്രം കണ്ടാൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചെറുപ്പം തൊട്ട് കാർണോമാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ഒരു ഇത് വച്ചിട്ട് പലതും നമ്മളെ മനസ്സിൽ ഇത് കണ്ടപ്പം ആഗ്രഹിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല നടന്നിട്ടുണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് നടന്ന് പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഏറ്റവും ഞാൻ ആഗ്രഹിക്കാറുള്ളത് നല്ല ഒരു ജീവിതം കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ചെറുപ്പത്തിലേ അത് കണ്ടപ്പം പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഞാൻ അത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ജീവിതത്തിൽ വലിയ കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല ഒരു വിധം നല്ല ഒരു ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയേ എനിക്ക് ഇപ്പം ഈ വാൽ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളു